കായികം തൊഴിലാക്കിയവരെ പറ്റി പറയുമ്പോൾ ഒന്നും രണ്ടുമല്ല ഒരുപാടു പേരുണ്ട് ഇപ്പോൾ ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു ആരും ഒന്നുമല്ലെന്ന് വിചാരിച്ച ഒരാൾ ഈ ഒരു രാജാവായി മാറിയ കഥ വരെ ഉണ്ട് കാരണം ലയണൽ മെസ്സി ലയണൽ മെസ്സി നമ്മൾ കായികം തൊഴിലാക്കിയ ഒരാളാണ് അതയാളുടെ തൊഴിലാണ് അയാളുടെ ക ഗ്രോത്ത് ഡെഫിഷ്യൻസി കാരണം അയാളുടെ കാലുകൾ നീളം ഇല്ലാതെ ആയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചു മുന്നോട്ടു വന്നൊരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അദ്ദേഹം കായികം തൊഴിലാക്കി മാറ്റിയൊരാളാണ് ലയണൽ മെസ്സി അതുപോലെതന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർട്ടുഗലിൻ്റെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ സ്പോർട്സിൽ പങ്കെടുക്കാറുണ്ട് ഒരുപാടുപേർ ചില ടൈമിൽ നമുക്ക് സ്പോർട്സ് പിരീഡ് ആകെ സ്കൂളിലുള്ളത് ഈ നമ്മുടെ ഈ ഒന്നു തൊട്ട് പത്തു വരെ ഇടയിൽ ഒരു പിരീഡ് ആണ് നമുക്ക് സ്പോർട്സ് പിരീഡ് ആയിട്ടുള്ളത് അതും ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി പക്ഷെ നമുക്ക് മറ്റുള്ള സഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാറന്മാരുടെ ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് അവർ നമ്മളെ ഒരുപാട് സ്ഥലത്തേക്ക് സ്പോർട്സിനെ പറ്റി പറയിപ്പിക്കാനും അറി അറിയിക്കാനും ഒരുപാട് സ്ഥലത്തേക്കു പോകാറുണ്ട് അത് നമുക്ക് മനസ്സിലാകും ഒരുപാട് സ്ഥലത്തേക്ക് അയാൾ അവർ നമ്മളെ സാറന്മാർ കൊണ്ടുപോകാറുണ്ട് പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു എന്നു പറയണത്തിൽ ഒരു സ്കൂളിലും പി ടി പിരീഡ് ഇല്ല നമ്മളൾ കളിക്കണമെങ്കിലും നമ്മൾ സ്പോർട്സിൽ പങ്കെടുക്കണമെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം പക്ഷേ അവിടെ അവിടെ നിന്ന് നിന്ന് നമ്മളെ കൊണ്ടുപോകാറുണ്ട് അത് നമ്മൾ സമ്മതിച്ചേ പറ്റു കൊണ്ടുപോകാറുണ്ട് അതുപോലെ കായികം തൊഴിലാക്കിയ ഒരുപാട് പേരുണ്ട് സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹം കാര്യം അദ്ദേഹം അദ്ദേഹത്ത് അദേഹത്തിന് ഏറ്റവുംകൂടുതലിഷ്ടം അദ്ദേഹം ഫുട്ബോൾ ആയിരുന്നു എന്നിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിച്ചത് ക്രിക്കറ്റിലാണ് ക്രിക്കറ്റിൽ അദ്ദേഹത്തെ വെല്ലാൻ ഇപ്പോള്ളാരുമില്ല അതുപോലെതന്നെ എം എസ് ധോണി അതുപോലൊരുപാട് വിരാഡ് കോലി അതുപോലൊരുപാട് കാര്യ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ നമ്മുടെ ലയണൽ മെസ്സിയെ തന്നെ പറയാം കാരണം അദ്ദേഹത്തിന് കാലിന് ഇനി വളരില്ല എന്നു തീരുമാനിച്ച സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെതന്നെ ഒരുപാട് ഒരുപാട് കുട്ടികൾ സ്പോർട്സിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇവിടെ ഒരുപാട് കഴിവുള്ള കുറെ കുട്ടികളുണ്ട് അവർ നല്ലപോലെ ഫുട്ബോൾ കളിച്ച് നമ്മൾ നല്ലൊരു നിലയിൽ എത്തുകയും അവരവരും ഇപ്പോഴത്തെ കുട്ടികളൊരുപാടുപേരും കായികം ഒരു തൊഴിലാക്കിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കയാണ് പക്ഷെ അതിനുള്ള ഒരു ഫെസിലിറ്റി കേരളത്തിലോ മറ്റ് രാജ്യങ്ങളിലോ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അവരെല്ലാവരും കായികം തൊഴിലാക്കാൻ ഉള്ളൊരു തന്ത്രപ്പാടിലാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് സ്പോട്സിൽ സ്പോട്സിലും സ്പോട്സിൽ പങ്കെടുക്കാറുണ്ടെങ്കിലും ഇത് കൂടിപ്പോയാൽ സ്റ്റേറ്റ് വരെ പോകും അതു വരെ കഴിഞ്ഞ് പിന്നെങ്ങനെയാണ് അതുപോലെതന്നെ ഒരുപാടുകാര്യങ്ങൾ ഇതിൽനിന്നു മനസ്സിലാക്കാം അതുപോലെതന്നെ ഒരുപാട് കുട്ടികളിതിൽ പങ്കെടുക്കാൻ താത്പര്യപ്പെടുന്നു പക്ഷേ അവർക്ക് കഴിയുന്നില്ല ഒരുപാട് കുട്ടികൾക്ക് കഴിവില്ലാത്തവർക്കു കിട്ടുന്നു കഴിവുള്ളവർക്ക് കിട്ടുന്നില്ല അങ്ങനൊരുപാട് കാര്യങ്ങളിൽ സ്പോർട്സിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതുപോലെതന്നെ പോർചുഗൽ എന്നൊരു രാജ്യത്തിൻ്റെ പേര് അത്രയും ഒരു വലിയ ആളായ

ഒരുപാട് കുട്ടികൾ അദ്ദേഹത്തെ ഫാൻസായിട്ടും അദ്ദേഹത്തിനെ ആരാധിക്കുകയാണ് അതു കായികത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൊണ്ടേ അതു പറ്റു കായികം തൊഴിലാക്കാൻ പറ്റും കായികം തൊഴിലാക്കിയാൽ ലൈഫിൽ എത്ര സക്സസ് ആകും ലൈഫിൽ എങ്ങനെയെന്ന് നമുക്ക് പറയാം ഇപ്പോൾ പെട്ടെന്നൊരപകടം പറ്റിപോയാൽ നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റില്ല അതൊരു കാര്യമാണ് കായികം തൊഴിലാക്കാൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇഞ്ചുറി ഇഞ്ചുറി വന്നാൽ ഒരിക്കലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊരു മെയിൻ കാര്യമാണ് നമ്മുടെ സ്കൂളുകൾക്ക് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ സ്പോർട്സിൽ പങ്കെടുക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് അവർക്കതിനുമായ സമ്മാനം കിട്ടുന്നുണ്ട് അവർക്കാകെ കിട്ടുന്നത് ഒരു മെഡലാണ് അടുത്ത സ്റ്റേജിലോട്ട് പോയാലും അത് അവരേതുവരെ പോകും ഇന്ത്യൻ ടീമിൽ കയറും ഇവിടെ ഫുട്ബോൾ ഫോട്ബോൾ കളിച്ചു കളിച്ച് ഇന്ത്യൻ ടീമിൽ കയറാൻ പോണ ഇന്ത്യൻ ടീമിൽ കേരള കേരളത്തിൽ നിന്നല്ല ഇന്ത്യൻ ടീമെ ഇന്ത്യയിലില്ല ഇപ്പോൾ എല്ലാ സ്പോർട്സിനും ഒരു നല്ല കാലം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കയാണ് നമ്മുടെ കുട്ടികൾ സ്പോട്സൊക്കെ കളിക്കാറുണ്ട്